ഞാൻ എപ്പോഴും മൂളാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്നത് ഭക്തിഗാനങ്ങളാണ് ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് ഞാൻ കൂടുതലും കേൾക്കാറുള്ളത് പള്ളിയിൽ പോവുമ്പോഴും ഞാൻ ഒരു ക്രിസ്ത്യാനി ആണ് പള്ളിയിൽ പോവുമ്പോഴും തിരിച്ചുവരുമ്പോളും പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സൺഡേ സ്കൂളിലും ഓരോ പരിപാടികളിലും ക്രിസ്തീയ പാഠ ഗാനങ്ങളാണ് കൂടുതൽ പാടിയിരിക്കുന്നത് അത് നമ്മൾ മാനസികമായ ഉല്ലാസത്തിനും ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ അറിയാനും കഴിയുന്നുണ്ട് നമ്മുടെ ഒരു വിനോദമായിട്ടും മായിട്ടാണ് ഈ ഗാ ഭക്തിഗാനങ്ങൾ കൂടുതൽ കേൾക്കുന്നത് ഞാൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്ക് അവിടെ കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് ദൈവവുമായി കൂടുതൽ അടുക്കുവാനും നമ്മൾ മനസ്സിന് ഒത്തിരി സങ്കടങ്ങൾ വരുമ്പോഴത്തേക്കും അതൊക്കെ മാറി മനസ്സിന് സന്തോഷം ലഭിക്കുന്നുണ്ട് പാട്ട് കേൾക്കുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും ജോലികളുടെ ഭാരം കൂടാതിരിക്കു വാനായിട്ട് സഹായിക്കുന്നുണ്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്കും മാനസിക ഉല്ലാസത്തോടെ കൂടെ തന്നെ പാട്ടിൻ്റെ ഓരോ ക ഓരോ വേർഡ്സിലും അതിന് അർത്ഥവത്തായ ഒത്തിരി വാക്കുകളുണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് ഈ പാട്ടിലൂടെ ദൈവ ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന രീതിയിലാണ് ഈ പാട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ദൈവവുമായി കൂടുതൽ അടുക്കാനും ഓരോ പാട്ടിലൂടെ ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ ആ പാ ഓരോ പാട്ട് പാടുമ്പോഴും ദൈവത്തോട് ഉള്ളൊരു പ്രാർത്ഥന നിയോഗമായിട്ടാണ് ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോഴും പാടുമ്പോഴും അതിനെ എടുക്കുന്നത്